ബൈക്ക് ഓടിക്കാൻ വളരേ ഇഷ്ടം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ ബൈക്ക ബൈക്കിങ്ങിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്

ചെയ്യുമ്പോൾ മാത്രമേ ബൈക്കിംഗ് പൂർണ്ണമായും ചെയ്ത് തീർക്കാൻ കഴിയുകയുള്ളു നമ്മളുടെ എന്തെങ്കിലും ചെറിയ ശ്രദ്ധക്കുറവു മൂലം മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ബൈക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം എനർജി വളരെയധികം ഊർജ്ജം ആവശ്യമുള്ള കാര്യം കൂടിയാണ് ബൈക്കിങ് നമ്മൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രമായിക്കോട്ടെ നമ്മൾ ധരിക്കുന്ന ഹെ ഹെൽമെറ്റ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ അതൊക്കെ നമ്മൾ ഓരോന്നും ശ്രദ്ധാപൂർവം സൂക്ഷിച്ച്

ഇപ്പം ബൈക്കിങ് ചെയ്തു റേസിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു സന്തോഷം ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടിയെടുത്ത ഒരു സന്തോഷം നമ്മളുടെ ഉള്ളിലോട്ട് ഇങ്ങനെ വരും

ന നമ്മൾ നമ്മളുടെ ഇഷ്ടമുള്ള ഒരാൾ നമ്മളുടെ കൂടെ തന്നെ ന ഇങ്ങനെ വരുന്ന പോലെ ഒരു തോന്നലാണ് ബൈക്കിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് വരുന്നത് കൂടാതെ ബൈക്കിംഗ് ചെയ്യ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യണം നമ്മൾ പോകുന്ന വഴികൾ നമ്മൾക്ക് പരിചയം ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ വഴിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ആയിരിക്കണം യാതൊരു പ്രാക്ടീസോ പരിചയമോ ശ്രദ്ധയോ ഇല്ലാതെ ഇത് ചെയ്യുവാൻ ഒരിക്കലും കഴിയുന്നതല്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവനും ശരീരത്തിനും അപകടകരമായി ബാധിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇത്

മറ്റ് അപകടങ്ങള് സംഭവിക്കുന്ന അങ്ങനെയൊക്കെ പലേതും പുറമേ നിന്ന് നോക്കുന്ന ആൾ ആളുകൾക്ക് പലേതും തോന്നുമെങ്കിലും ഇത് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം കെയർഫുള്ളോടുകൂടി വളരെയധികം ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടും

നമ്മൾ അത്രയും ഉള്ളിൽ വിചാരിച്ചു ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും നമ്മൾ പിടിക്കുന്നത് നമ്മൾ ബൈക്ക് കൈകാര്യം ചെയ്യുന്ന രീതികൾ ഇതൊക്കെ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ബൈക്കിംഗ് എന്നത് കൊണ്ട് തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്